ടിവി വാർത്താ മാധ്യമങ്ങളുടെ ടിവി റേഡിയോ മുതലായ പരിപാടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിജ്ഞാനം വിനോദവും പകരുന്ന പരിപാടികളാണ് അതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് സഫാരി ടിവിയിലെ യാത്രയെ കുറിച്ചുള്ള പരിപാടിയാണ് അത് നന്നായിട്ട് എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി കൃത്യമായി വിവരണം നൽകുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പോയി കണ്ട ഒരു അനുഭവം നൽകുന്നു ടിവിയിൽ വാർത്ത അധിഷ്ഠിത പരിപാടികൾ ഒന്നായിരിക്കും സീരിയലുകളുടെ അതിപ്രസരണം നമുക്ക് ഈ റേഡിയോയിലെ അങ്ങനെയുള്ള ഗാനങ്ങൾ ടിവിയിലെ പാട്ടുകൾ തുടങ്ങിയവ വളരെ അധികം നന്നായിരിക്കും കുടുംബമായിട്ട് ഒരുമിച്ചു ഇരുന്ന് കാണാൻ പറ്റുന്ന പരുപാടികൾ ആയിരിക്കും നല്ലത് സിനിമാധിഷഠിത പരിപാടികൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും പിന്നെ വിനോദത്തിനും വിജ്ഞാനത്തിനും സ്പോർട്സ് അധിഷ്ഠിത പരിപാടികൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് നമ്മുടെ വാർത്താ ചാനലുകളിൽ ഉള്ള അവതരണവും അതിൻ്റെ ഈ തയ്യാറാക്കലും അതിൻ്റെ ക്യാമറ എഡിറ്റിങ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ അധികം നന്നായിട്ട് തോന്നുന്നുണ്ട് ഒത്തിരി മത്സരം ഈ ഫീൽഡിൽ ഉണ്ട് ചാനലു കളും ക്യാമറമാൻ വരും അതെല്ലാം നന്നായിട്ട് അവതരണം നടത്താനായിട്ട് പരിശ്രമിക്കുന്ന ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടു പോകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരികപരമായ ഉന്നമനത്തിന് നല്ലതായിട്ട് അനുഭവപ്പെടുന്നു ഇപ്പോഴും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെൻസറിങ് ഉള്ളത് എപ്പോഴും നന്നായിരിക്കുമെന്ന് തോന്നുന്നു